ഹലോ വെ വെറ്ററിനറി ഡോക്ടർ അല്ലേ ആ ഞാനിവിടെ ഇടുക്കി മൺപാറയിൽനിന്ന് വിളിക്കുവാണേ ആ മേഡം പെ ഞാനൊരു പെറ്റിനെ വളർത്തുന്നുണ്ടായിരുന്നേ ആ ഡോഗ് ആണ് പൊമറേനിയൻ ആണ്

കുറച്ച് ദിവസമായിട്ട് അവന് വയ്യായിരുന്നു ക്ഷീണം ആ ക്ഷീണിച്ചിങ്ങനെ കിടക്കുവാണ് ഫു ആ ഫുഡ് ഒന്നും കഴിക്കുന്നില്ല അങ്ങനെ അങ്ങനെ എന്താണ് ആ ഒട്ടും ആക്റ്റീവ് അല്ല ഉം എന്തൊക്കെയാണ് വേറെ എന്തൊക്കെ

ആ അതെയതെ അഞ്ച് വയസ്സ് ഇല്ലയില്ല ഉം വാക്സിനും എടുത്തില്ലായിരുന്നു അവിടെ എന്തൊക്കെ ചികിത്സാ രീതികൾ ഉണ്ടെന്ന് കൂടെ അറിയാനായിരുന്നു വിളിച്ചത്

ഉം മേഡം എപ്പം ആ അത് മറന്ന് പോയതാണേ ആ ഓക്കേ ആ കുട്ടികളുണ്ട് ആ ആ ആ വിരമരുന്ന് ഇപ്പോൾ കൊടുത്തിട്ട് ഒരു ഒരു മാസം ആയിക്കാണും ആ ആ

ഉം ആ നാളെ നാളെ എത്ര മണിയാകുമ്പോഴാണ് എത്തിയെന്ന് വരേണ്ടത് ആ ആ പത്തുമണിയൊക്കെ ആകുമ്പോഴത്തേന് വരാം

ഇല്ല ഒരെണ്ണമേ ഉള്ളൂ ആ ഈ ഒരെണ്ണം മാത്രമേ ഉള്ളൂ വേറെ മൊത്തത്തിൽ ഒന്ന് ചെക്ക് ചെയ്യണമായിരുന്നു അവനെ ആ വേറെ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടോ എന്നും കൂടി ഒന്ന് അറിയാനായി

അറിയില്ല ര രണ്ട് ദിവസമായി പിന്നെ

ആ അങ്ങനത്തെ ശല്യങ്ങളൊന്നുമില്ല ആ അതെയതെ

ആ ഏത് അങ്ങനെ അങ്ങനെ ഒരിത് വ കണ്ട് തുടങ്ങിയില്ല ക്ഷീണം മാത്രമേ ഉള്ളൂ ആ അപ്പം വേറെ എന്തെങ്കിലും ആ ഫുഡ് എടുക്കുന്നില്ല അപ്പം അതിന് കുറച്ചും കൂടെ പ്രോട്ടീൻ ഉള്ള എന്തെങ്കിലും ഫുഡ് അവന്

ഓക്കെ ആ നാളെ വരാം മേഡം ഓക്കെ താങ്ക് യൂ